വളർത്തു മൃഗങ്ങളെ ഏറ്റവും കൂട്തലും എനിക്ക് തോന്നുന്നു പശു വളർത്തൽ മേഖലകൾ ഉണ്ട് ഇവിടെയുള്ള ജനങ്ങൾ വളരെയധികം സന്തുഷടരാണ് പശു വളർത്തലിലൂടെ പാൽ ഉൽപ്പാദനത്തിലൂടെയും അതിൻ്റെ വളം ചാണക വളം ഉൽപ്പാദനത്തിലൂടെയും നമുക്ക് വളരെയധികം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് പശു വളർത്തൽ ഇതേപോലെ തന്നെ പോത്ത് വളർത്തലിൽ ആണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ മെച്ചമുണ്ടാക്കാൻ കാത്തിരിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ ആട് മുയൽ കോഴി മുതലായവകളിൽ നിന്നും ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കോഴി വളർത്തലിൽ ആണെങ്കിൽ മുട്ട ശേഖരണത്തിലൂടെയും താറാവ് വളർത്തലിലും മുട്ടശേഖരണവും ഇറച്ചിക്കായിട്ടും എല്ലാത്തിനും നമുക്ക് വളർത്തു മൃഗങ്ങളിൽ നിന്നു ഒരുപാട് വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് മുമ്പിൽ തന്നെ ഉണ്ട് പശു വളർത്തൽ പോത്ത് വളർത്തൽ ആട് വളർത്തൽ കോഴി മുയൽ താറാവ് അങ്ങനെ എല്ലാ മൃഗങ്ങളിൽ നിന്നും പാലായിട്ടും മുട്ട ആയിട്ടും വളമായിട്ടും ഇറച്ചി ആയിട്ടും ഒക്കെ നമുക്ക് വരുമാനമുണ്ടാക്കുന്ന മേഖലകൾ വളർത്തു മൃഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് സംതൃപ്ഷ്ടം